ഓൺലൈൻ വഴി ഞാനൊരു ബാഗ് ഓഡറെയ്താരുന്നു അപ്പോള് അത് ഇപ്പോള് ഒരാഴ്ചയായി എനിക്കത് കിട്ടി നല്ല ബ്രാന്റഡ് ബ്രാന്റഡ് കമ്പനിയുടെ ബാഗായിരുന്നു ബ്രാന്റഡും അതുപോലെ തന്നെ വിലയും അതിന് കൂടുതല് തന്നെയായിരുന്നു ബ്രാന്റഡ് ആയതു കൊണ്ടുതന്നെ ബാഗിന്റെ വിലയും കൂടുതലായിരുന്നു അപ്പോള് നല്ല കമ്പനിയുടെ ആയതുകൊണ്ട് മാത്രമാണ് ഞാന് വിശ്വസിച്ച് വാങ്ങിച്ചത് ഇപ്പോള് ഒരാഴ്ച്ചയായതേ ഉള്ളൂ എന്റെ മോള്ക്ക് സ്കൂളില് പോകാന് വേണ്ടിയിട്ട് വാങ്ങിച്ച ബാഗാണത് ഒരാഴ്ചയായിട്ടെ ഉള്ളൂ കുഞ്ഞത് യൂസെയ്യാന് തുടങ്ങിയിട്ട് അപ്പോള് ഇന്നലെ നോക്കിയപ്പോള് അതിന്റെ സിബ്ബ് ഫുള്ള് കംപ്ലൈൻറ്റായി സിബ്ബ് ബാഗ് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നില്ല പിന്നത് സൈഡ് വശം ഫുള്ള് കീറി കീറാന് തുടങ്ങി അപ്പോള് കീറാന് തുടങ്ങി അത് മാത്രമല്ല ഒരാഴ്ച ഉപയോഗിച്ചപ്പോഴത്തേക്കും അതിന്റെ കളറിന്റെ ക്വാളിറ്റി കളറിൻറ്റെ ക്വാളിറ്റി മൊത്തം മങ്ങിയ കൂട്ടായാന് തുടങ്ങി അപ്പോള് ഇത് ബ്രാന്റഡ് സാധനമാണെന്നും പറഞ്ഞ് കൊടുത്തിട്ട് ആള്ക്കാരെ പറ്റിച്ചു കൊണ്ടിരിക്കയല്ലേ